റീസെന്റ് ആയിട്ട് റോബർട്ട് കിയോസാക്കിൻ്റെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്നൊരു ബുക്ക് ഞാൻ വായിക്കുകയുണ്ടായി അത് വായിച്ച സമയത്ത് അല്ലെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് എനിക്കത് എന്താ പറയുക അത്രയ്ക്ക് ഇൻട്രസ്റ്റോന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ എൻ്റെയൊരു ഫ്രണ്ട് എനിക്കത് സജസ്റ്റ് ചെയ്തതാണ് അപ്പം അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വച്ചിട്ടുണ്ടെങ്കില് ഒരു ഫിനാൻഷ്യൽ റിലേറ്റഡായിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ടേ മസ്റ്റ് വാച്ച് റീഡബിൾ ആയിട്ടുള്ള ബുക്കായിരുന്നു അതെന്നാണ് സൊ ഞാനൊരു ബിസിനസ് റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ടു തന്നെ എനിക്കത് വായിക്കാനായിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് വായിച്ചു തുടങ്ങിയത് വായിച്ചു തുടങ്ങിയപ്പോൾ നാച്ചുറൽ ആയിട്ട് എനിക്ക് ചെറിയൊരു ബോറിംഗ് തോന്നിയെങ്കിലും ഞാൻ ആ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതിന് അനുസരിച്ച് ആ വായിക്കല് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ വായിച്ച് വായിച്ച് ഏകദേശം ബുക്കിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഭാഗം കമ്പ്ലീറ്റാക്കിയ സമയത്ത് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി കാരണം ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പക്കാ ഒരു കോമൺമാൻ്റെയും അല്ലെങ്കിൽ റിച്ചസ്റ്റ് പേഴ്സണൻ്റെയും ലൈഫില് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്

നമ്മളിപ്പം നികുതി അടയ്ക്കുന്നതും അല്ലെങ്കിൽ നമ്മള് അല്ലാതെയും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തില് അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചിന്താഗതികൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതേപോലെ അതേപോലെത്തന്നെ അറ്റ് ദി സെയിം ടൈം ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ്സും അതേപോലെ അയാളുടെ തോട്ടുകളും ഏതൊക്കെ രീതിലാണ് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ കഴി പറ്റുന്ന ഒരു നല്ല ബുക്കായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു